ഞങ്ങൾ ഇപ്പോൾ പട്ടി ഒരു പട്ടിയെ മേടിച്ച് വളർത്തുന്നുണ്ട് അത് ജർമൻ ഷെപ്പേർഡ് പട്ടിയാണ് പെൺപട്ടീനെയാണ് ആദ്യം വാങ്ങിച്ചത് അന്ന് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിന് പന്തീരായിരം രൂപ കൊടുത്താണ് മൂന്ന് മാസം പോലും പ്രായം ആകാത്തതിനെ വാങ്ങിയത് അപ്പോൾ എൻ്റെ മോളാണ് അവൾ എഞ്ചിനീയർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് നിന്ന് ജോലി ഉണ്ട് എങ്കിലും അവൾക്ക് ആ പട്ടിയോട് വലിയ സ്നേഹം ആയിരുന്നു അങ്ങനെ ആദ്യം വാങ്ങിച്ചത് അതിനെ ആദ്യം പിന്നെ ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ക്രോസ് ചെയ്യിച്ചു അത് ക്രോസ് ചെയ്യാൻ കൊണ്ടുപോയത് ഹരിപ്പാടാണ് അങ്ങനെ ഹരിപ്പാട് ക്രോസ്സ് ചെയ്യാൻ പോകുന്ന ചെല്ലുമ്പം തന്നെ അവർക്ക് അയ്യായിരം രൂപ കൊടുക്കണം പിന്നെ ഒരു പട്ടികുഞ്ഞിനെയും കൊടുക്കണമായിരുന്നു അങ്ങനെ രണ്ടുന്നു ക്രോസ്സ് ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ മൃഗ മൃഗഡോക്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ സമയത്തൊക്കെ കൊണ്ടുപോയി ആദ്യമേ തന്നെ പിന്നെ നമ്മൾ കൊറോണ സമയത്തായപ്പോൾ ഞങ്ങളുടെ ആ പട്ടി പ്രസവിച്ചത് മൂന്ന് മാസം മതി മതി പട്ടിക്ക് പ്രസവിക്കാനായിട്ട് അപ്പം ആദ്യം പ്രസവിച്ച് പത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അതിൻറെ അകത്ത് ഒരെണ്ണം പ്രസവിച്ച് രൺ പിറ്റേ ദിവസം തന്നെ ചത്തുപോയിരുന്നു അതിനെയൊക്കെ സംരക്ഷിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ മോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കികൊള്ളുമായിരുന്നു അതിനെ നല്ല രീതിക്ക് കൊണ്ടുവന്നൊരു മൂന്ന് മാസം ആയപ്പോഴത്തേക്ക് ഒരു പട്ടികുഞ്ഞിനെ നാൽപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അങ്ങനെ ബാക്കി ഒമ്പത് കു കുഞ്ഞുങ്ങളെയും ഒരു പട്ടീനെ പട്ടികുഞ്ഞിനെ ഈ ക്രോസ്സ് ചെയ്ത ആൾക്ക് കൊടുക്കണമായിരുന്നു അതിൻ്റെ വില അങ്ങനെയാണ് പിന്നെ ക്രോസ്സ് ചെയ്തതിനെ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് വന്നത് മുപ്പത്തയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്ക് വരെ പട്ടികുഞ്ഞുങ്ങളെ വിറ്റു വിറ്റിരുന്നു